കടലിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതിന് നമ്മൾ കൂടുതലായുപയോഗിക്കുന്നത് വള്ളങ്ങളും ഫിഷിങ്ങ് ബോട്ടുകളുമാണ് ചന്തയിൽ നിന്ന് മീൻ പിടിച്ച് കടൽത്തീരത്ത് കൊണ്ട് വന്നിട്ട് മത്സ്യം വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ലേലം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ആദ്യം ഈ മത്സ്യം ലേലം പിടിച്ച് മറ്റു സമീപപ്രദേശങ്ങളിലുള്ള ചന്തകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കുകയാണ് അപ്പം അവിടുന്ന് ആളുകൾ ചെറിയ കച്ചവടക്കാർ അവിടുന്നത് സൈക്കിളിലും സ്കൂട്ടറിലുമൊക്കെ ആയി മറ്റ് പ്രദേശങ്ങളിലൊക്കെ കൊണ്ട് പോയി വിൽക്കുന്നു അപ്പോൾ ഈ സാധാരണ കൂടുതലായി കിട്ടുന്നത് മത്തി ചെറിയ മീനുകൾ മറ്റ് അയല ചെമ്മീൻ ഇങ്ങനെയുള്ള കൂടുതൽ മീനുകളാണ് സാധാരണ കിട്ടുന്നത് പിന്നെ ഞങ്ങളുടെ സമീപത്ത് നമ്മുടെ സമീപത്ത് ഇവിടെ ഉള്ളത് ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരിയിൽ പുറത്ത് നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന മീനുകളും അവിടെ കച്ചവടം നടത്തുന്നുണ്ട് ഈ കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ അല്ല മത്സ്യ വല്യ കപ്പലുകളിലൊക്കെ പിടിക്കുന്ന മീനുകൾ വർഷങ്ങൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം നമ്മൾക്കത് ചിലപ്പോൾ അതിൻ്റെ കെമിക്കലുകളെല്ലാം ചേർത്ത് ഇത് കൂടുതൽ നമുക്ക് കൂടുതൽ കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അത് ഉപയോഗയോഗ്യമാണോന്നറിയില്ല എങ്കിലും മനുഷ്യരത് തന്നെ കൂടുതലായിട്ടുപയോഗിക്കുന്നതിൽ നിന്ന് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾക്ക് മത്സ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പ്രത്യേകിച്ചൊക്കെ കുട്ടനാടും കടലിനോട് ചേർന്ന് കെടക്കുന്ന ആ ആളുകളുമായത് കൊണ്ട് നമുക്ക് കൂടുതൽ മത്സ്യ സമ്പത്ത് കൂടുതലുപയോഗിച്ചും ജീവിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ ഇവിടെ സമീപത്ത് നമ്മുടെ ഈ കടയിലോ ജംങ്ങ്ഷനിലോ മീൻ വിൽക്കുന്ന ചന്തയുണ്ട് കൂടാതെ രാമങ്കരിയിൽ മത്സ്യം കൂടുതലായിട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട് പിന്നെ കൂടുതലായിട്ട് മത്സ്യം കടൽ നദിയിൽ നിന്നും പിടിച്ച് വിൽക്കുന്ന ചെറിയ തൊഴിലാളികളുണ്ട് അവർക്ക് വളരെ ഫ്രഷായിട്ടുള്ള നമുക്ക് മത്സ്യം ഇവിടെ വിൽക്ക് വിൽക്കാനും അത് നമുക്കുപയോഗിക്കാനും സാധിക്കുന്നുണ്ട് കൂടുതൽ സമയം ചില പാടശേഖരത്തിൽ നിന്ന് പാടം വറ്റിക്കുമ്പോഴത്തേക്കും കൂടുതൽ മീൻ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ടത് വെള്ളം വറ്റിക്കുന്ന മോട്ടോറിൻ്റെ മുന്നിൽ വലകെട്ടി കൂടുതലായിട്ട് പക്ഷേ ഫിഷറീസുകാരതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ചെറിയ ചെറിയ മീനുകൾ ചത്തുപോകുന്നതുകൊണ്ട് അതിനെ അല്ലെങ്കിലിത്ര സെൻറ്റീമീറ്റർ അകലമുള്ള വലയുളള കണ്ണികളുള്ള വലകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ വെച്ച് പിടിച്ചെങ്കിൽ ഇപ്പം വല്യ മത്സ്യങ്ങൾ മാത്രമേ അതിൽ കിട്ടുകയുളളൂ ചെറിയ മത്സ്യങ്ങളതിൽ നിന്ന് നദിയിലേക്ക് പോകുന്നുണ്ട് അതാ കൂടുതലായിട്ട് പിന്നീടുൽപ്പാദനം അതുണ്ടാകുകയും ചെയ്യും അപ്പം വലിയ മത്സ്യങ്ങൾ മാത്രം നമുക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ നദികളിൽ ചൂണ്ടയിട്ടും വല വീശിയും ആളുകൾ മത്സ്യത്തെ പിടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഈ കുട്ടനാട്ടിൽ കൂടുതലായിട്ടും മത്സ്യബന്ധനം കൊണ്ട് മാത്രം ജീവിക്കുന്ന കൂടുതൽ ആളുകളുണ്ട് അപ്പം കൂടുതലും ഫ്രഷായിട്ടുള്ള മത്സ്യം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഷോർട്ടേജുള്ള പാടശേഖങ്ങളിലെയൊക്കെ പണികളാകുമ്പോൾ ഈ ജോലി ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം മറ്റ് ഈ കാർഷിക കാർഷികമേഖലയിലേക്ക് പോകുന്നതുകൊണ്ട് മത്സ്യം പിടിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും അപ്പം നമ്മൾ മറ്റ് ചന്തകളിൽ പോയി മീൻ മേടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് മീൻ പിടിക്കുന്നവരുമുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ മത്സ്യം അതു കൂടാതെ കൂടുതലായിട്ടും മത്സ്യം വളർത്തുന്ന കൂടുതൽ ആൾക്കാരിവിടെയുണ്ട് പാടശേഖരങ്ങളിൽ കൃഷിയില്ലാതെ കിടക്കുന്ന സമയത്തും കൂടുതലും മത്സ്യങ്ങൾ വളർത്തി അത് മൊത്തമായും ചില്ലറയായിട്ടും വിൽക്കുന്ന സ്ഥലങ്ങളിവിടെ ഒത്തിരിയുണ്ട് അതിന് സ്വന്തമായി തീറ്റി കൊടുക്കുകയും അതിന് ആവശ്യമായ വെള്ളം ഫ്രഷ് ആയിട്ടുള്ള വെള്ളങ്ങൾ പുളി പുളിപ്പില്ലാത്ത വെള്ളം അപ്പം ജലാശയത്തിൽ നിന്നും നല്ല വെള്ളം കേറ്റിയിറക്കി മാത്രമേ അത് കൃഷി ചെയ്യാൻ സാധിക്കത്തുള്ളു പിന്നെ പൊതുജലാശയത്തിൽ വലകെട്ടി മത്സ്യം പിടിക്കുന്ന ആൾക്കാരുമുണ്ട് അത് വേഗം നല്ല വളർച്ച കിട്ടുന്ന മീനാണ് കരിമീൻ ചെമ്മീൻ അങ്ങനെയുള്ള വളർത്തുമത്സ്യങ്ങൾ കൂടുതലായിട്ടും വളർത്തുന്നുണ്ട്